എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു വിവോൻ്റെ സെറ്റാണ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സെറ്റാണ് പിന്നെങ്ങനെയാണെന്നു വച്ചു കഴിഞ്ഞാൽ അതിന് വൺ ട്വൻ്റി എയിറ്റ് ജി ബി റാം ഉണ്ട് പിന്നെ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ജി ബി റോം ആണുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹാങ്ങ് കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം ക്ലിയർ ഉള്ള ക്യാമറയാണ് ഉള്ളത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ് നമുക്കിപ്പോൾ അതിന് ടൈപ്പ് സി ചാർജിങ്ങ് കേബിളാണ് വരുന്നത് ഇപ്പോൾ എല്ലാ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ടൈപ്പ് സി ചാർജിംഗ് കേബിളാണുളളത് അതാണെങ്കിൽ കംപ്ലൈൻ്റ്സ് കുറവാണ് അതിൻ്റുള്ളിലെന്നു പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചാർജിങ്ങ് കേബിളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടു കുത്താം പക്ഷെ പഴയതാണെങ്കിൽ അങ്ങനെയൊന്നും നടക്കില്ല അപ്പോൾ ആകെ കുറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇപ്പോൾ അത് തിരുത്തി വിവോയും എല്ലാ കമ്പനികളും ടൈപ്പ് സി ചാർജിങ്ങ് കേബിൾ ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു ഫോണാണ് പിന്നെയെങ്ങനെയെന്ന് വച്ചു കഴിഞ്ഞാൽ അതിന് ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നല്ല അത്യാവശ്യം നല്ലോണം നിൽക്കുന്നുണ്ട് ഡിസ്പ്ലേ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാനും നമ്മൾക്കിപ്പോൾ ടി വിയോ അങ്ങനെ എന്തെങ്കിലും വാച്ച് ചെയ്യാൻ ഒക്കെ നല്ലതാണ് കുഴപ്പമില്ലാത്തൊരു സെറ്റാണ്